തമിഴിൻ്റെ ഒരു ഉപഭാഷ എന്ന നിലയിൽ രൂപപ്പെട്ട ഒരു ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ എ ഡി ഒൻപതാം നൂറ്റാണ്ടിലാണ് മലയാള ഭാഷ ദ്രാവിഡ ഭാഷയുടെ ഒരു ഉപഭാഷ എന്ന നിലയിൽ പ്രത്യേക ഒരു ഭാഷയായത് വട്ടെഴുത്ത് എന്ന ലിപിയിൽ നിന്നും അമ്പത്തൊന്ന് അക്ഷരമുള്ള മലയാള മലയാളത്തിൻ്റെ അമ്പത്തൊന്ന് അക്ഷര അക്ഷരമുള്ള ഒരു ഭാഷയാക്കി മലയാള ഭാഷയെ മാറ്റിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അപ്പോൾ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായി അതുകൊണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത് മലയാള ഭാഷയിലെ ആദ്യത്തെ കണ്ടെടുക്കപ്പെട്ട ഒരു രേഖയെന്ന് പറയുന്നത് ചേര ചക്രവർത്തിയായിരുന്ന രാജശേഖര വർമ്മൻ്റെ വാഴപ്പള്ളി ശാസനമാണ് അതുപോലെതന്നെ നമ്മുടെ പിന്നെ അതിന് ശേഷം വന്ന ഒരുപാട് കവികളും സാഹിത്യകാരന്മാരും നമ്മുടെ ഫാ മലയാള ഭാഷയ്ക്ക് ധാരാളം സംഭാവനകൾ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊ അങ്ങനെയൊക്കെ നമ്മുടെ മലയാള ഭാഷ ഒരുപാട് പഴയ കാലത്തിൽ നിന്നും ഒരുപാട് വികസനം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ മലയാള ഭാഷയാക്കി മാറ്റാൻ വേണ്ടി ഒരുപാട് പിന്നെ നേട്ടങ്ങളും സംഭാവനകളും എല്ലാം ഇപ്പോഴുള്ള പഴയ പഴയ കാലത്തുള്ള നമ്മുടെ ഉള്ളൂർ എസ് പരമേശ്വര അയ്യറായിരുന്നാലും അതുപോലെതന്നെ നമ്മുടെ മഹാകവികളും സാഹിത്യകാരന്മാരും എല്ലാം നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒരുപാട് സംഭാവനകൾ തന്നിട്ടുണ്ട് നമ്മുടെ മലയാള ഭാഷയെ ഇന്നത്തെ രീതിയിലോട്ട് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളും അവർ സഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ മലയാള ഭാഷയെ ശ്രേഷ്ഠ ഭാഷാ പദവിയിലോട്ട് ഉയർത്തിയത്